അ പ്രാദേശിക വാർത്തകൾ വാർത്തകളൊക്കെ ആവശ്യത്തിനൊക്കെ വരാറുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ കേൾക്കാറും ഉണ്ട് അല്ല കാണാറും ഉണ്ട് പത്രങ്ങളിൽ ആ കൂടുതലും പ്രാദേശികവാർത്തയിൽ നമ്മുടെ പ്രദേശം നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്കതിലൂടെ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ കഴിയുന്നുണ്ട് കാരണം എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ പത്രം വരുന്നത് കൊണ്ട് നമ്മളത് വായിക്കുമ്പം നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മഴയാണല്ലോ അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മടവീഴ്ച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃഷി കൃഷി കൃഷിയിടത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം കൃഷിയിടങ്ങൾ കൃഷി പാടത്ത് പാടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആ മരണം ചരമ കോളത്തിലാണെങ്കിൽപ്പോലും ആ ചരമപേജിൽ ആണെങ്കിൽപ്പോലും നമുക്ക് മരിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ നമുക്ക് അറിയാമെങ്കിലും ഒത്തിരി അറിയാൻ മേലാത്ത എന്നുവെച്ചാൽ നമ്മൾക്ക് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിട്ട് നമ്മൾ ഇപ്പം എവടെയങ്കിലും ഒരു മേഖലകളിൽ ജോലിചെയ്തു ആ ജോലിചെയ്ത അതുമായി ബന്ധപ്പെട്ട സ്ഥലം ഇപ്പം ഒരു എക്സാംബിള് പറയുകയാണെങ്കിൽ ഒരു കാഞ്ഞിരപ്പള്ളിയിലായിരിക്കാം കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന കാര്യങ്ങൾ ഈ ആലപ്പുഴയിൽ കിടക്കുന്ന എനിക്ക് അയ്യോ ഇന്ന സിസ്റ്റർ മരിച്ചല്ലോ അല്ലെങ്കിൽ ഇന്ന വ്യക്തി മരിച്ചല്ലോയെന്ന് എനിക്കാ പത്രത്തിലൂടെ കാണുമ്പോൾ പിടികിട്ടും എനിക്ക് മനസ്സിലാകും അപ്പോൾ ആ പേജ് കാണുന്നതിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അപ്പോൾ പത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി പ്രയോജനം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ എവിടെയെങ്കിലും ഇന്ന സ്ഥലങ്ങളിൽ വല്ലതും പാലം ഉൽഘാടനങ്ങളോ അല്ലെങ്കിൽ എന്താണേലും ഏത് ഉൽഘാടനങ്ങളാണെങ്കിൽപ്പോലും നമുക്കത് കാണാൻ ആയിട്ട് പത്രം വളരെയേറെ സഹായിക്കുന്നുണ്ട് പിന്നെ അത് മാധ്യമങ്ങളിൽ ഏറ്റവും വാർത്ത ഏറ്റവും ആവശ്യമായ വാർത്തകൾ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണല്ലോ പത്രം ഉപയോഗിക്കുന്നത് തന്നെ അപ്പം വാർത്ത എന്നാലും വലിയ കാര്യങ്ങളൊന്നും ചില കാര്യങ്ങൾ കിട്ടണമെന്നും ഇല്ല അത് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾകൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾകൊണ്ടോ ആയിരിക്കാം നമുക്കത് കിട്ടാതെ പോവണത് ആ വാർത്ത കിട്ടാതെ പോകുന്നതും ആ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അതുപോലെത്തന്നെ മാധ്യമങ്ങൾ വേണ്ടത്ര വേണ്ടത്രയെന്നെല്ല നല്ല രീതിയിൽത്തന്നെ പത്രം നന്നായിട്ട് ഉപകരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം